എൻ്റെ രണ്ടാമത്തെ പ്രോഡക്ട് എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് ഫോണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്ട് ആണ് മൊബൈൽ ഫോണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പല മോഡൽ ആദ്യമൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കോൾ വിളിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു ഉപയോഗം മാത്രമേ നമുക്ക് മൊബൈൽ ഫോണുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ കാരണം കോൾ വിളിക്കുക മെസ്സേജ് അയക്കുക ഇത് രണ്ട് കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളു നമുക്ക് അന്നത്തെ കാലത്ത് ടച്ച് ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നാല് പത്ത് പത്ത് വർഷം മുമ്പൊക്കെ അപ്പോൾ പിന്നീടാണ് ഓരോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി വന്നത് ടച്ച് കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് ഫോണിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഫോൺ വഴി നോക്കി കഴിഞ്ഞാൽ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഇൻറ്റർനെറ്റ് വഴി എല്ലാം കിട്ടാനും എല്ലാം നമുക്ക് അറിയാൻവേണ്ടിയിട്ടും സാധിക്കുന്നതാണ് ഈ ഫോണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ ഉണ്ണുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പോൾ എണീക്കുന്ന സമയം മുതൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയം വരെ നമ്മൾ മൊബൈൽ നോക്കാണ്ട് എന്തായാലും ഇരിക്കില്ല അപ്പം നമുക്ക് മൊബൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതിന് നെഗറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ അധികം ഉപയോഗം കൊണ്ട് ആൾക്കാരുമായിട്ട് പെരുമാറാനൊ നമ്മൾ അവരുമായിട്ട് മിഗ്ലിങ് ചെയ്യാനൊ പിന്നെ പിള്ളേരാണെങ്കിൽ വഴിതെറ്റി പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നെഗറ്റീവെന്ന് വേണമെങ്കിൽ പറയാം